ആ എനിക്ക് ഒരു ട്രിപ്പ് വരാൻ ആയിരുന്നു വയനാട്ടിലേക്ക്

വയനാട് അല്ല നിങ്ങൾ പറഞ്ഞു തന്നാൽ ഏതെല്ലാം സ്ഥലമാണ് പറ്റിയ ടൈമിന്

എനിക്ക് ഇപ്പോഴത്തേക്ക് ആ എല്ലം കൂടിയോ എത്ര ഡേ ഉണ്ടാവും

ത്രീ ഡേയിൽ ഏതെല്ലാം

ആ ആ ഓഹ് ഇതൊക്കെ എത്ര ദിവസത്തേക്കും ഓക്കേ ഓക്കേ ഇതൊക്കെ എത്ര ഡേ ആയിരിക്കും ട്രക്കിങ്ങ് മാത്രം എത്ര ദിവസം ഉണ്ടാവും അന്നേരം

ആ ആ